വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ശൈലി വച്ചു നോക്കുകയാണെങ്കിൽ കൾച്ചറിൽ വളരെ ഇമ്പോട്ടൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ഇന്ത്യയുടെ വച്ചു നോക്കുകയാണ് ഇന്ത്യയിൽ പ്രൈമറി എജ്യൂക്കേഷനെന്ന് പറയുമ്പോൾ റോട്ട് ലേണിംഗിൻ്റെ ബേസസിലാണ് എന്തോ റോട്ട് ലേണിംഗ് ചില കേസസിൽ ഉപകാരപ്രദമാണ് ബട്ട് ലോംഗ് ടേമിലാണെങ്കിൽ ഇത് സാധ്യത വളരെ ഇഫക്റ്റിവ് അല്ല അതിനെക്കാളും നല്ല വാല്യൂ വേസ്റ്റ് അല്ലേ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള നമ്മൾ റിയൽ ലൈഫിൽ എക്സ്പീരിയൻ ചെയ്തിട്ടാണ് പഠിക്കണെങ്കിലാണ് കുറച്ചു കൂടി ഒരു ഇഫക്റ്റിവ് ആയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇപ്പം നമ്മൾ കമ്പാരിറ്റിവിലാണ് ഈ ഒരു ബേസിസ് ആണ് ഈ അമേരിക്കയിൽ അല്ലേ വിദേശ രാജ്യങ്ങളിൽ കുറച്ചു കൂടി ഇമ്പ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്